നമ്മുടെ കേരളം കേരളത്തിന് തനതായ ചരിത്രവും അതിൻ്റേതായ ആചാരങ്ങളും സംസ്കാരവും എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മളതില് കുറച്ച് പറയാൻ നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കണ് മലയാളമാണെങ്കിലും എല്ലാ സംസ്ഥാനത്തും അത് സംസാരിക്കുന്ന രീതിയിലും അതിൻ്റെ ഭാഷാ ശൈലിയിലും ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പല തരത്തിലുള്ള മതത്തിലുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് ഹിന്ദു മതം ക്രിസ്ത്യൻ മതം മുസ്ലിം മതം ബുദ്ധിസം ഒക്കെ അങ്ങനെ പല തരത്തിലുള്ള മതക്കാർ നമ്മുടെ കേരളത്തിൽ ജീവിച്ചു വരുന്നു പണ്ടുതൊട്ടേ നമ്മൾ അവർ ഓരോരുത്തരും പ വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളാണ് പിന്തുടർന്നു വരുന്നത് ആ വ്യത്യസ്ത തരത്തിലുള്ള ഉൽസവങ്ങളും അതുപോലെ തന്നെ അനുഷ്ടാനങ്ങളൊക്കെയാണ് നമ്മൾ ഹിന്ദുക്ക ഹിന്ദു മതത്തിൽപ്പെട്ടവർ ഓണം വിഷു അങ്ങനെ പറഞ്ഞാൽ ഫെസ്റ്റിവെൽസ് ആഗോസി ആഘോഷിക്കുമ്പോൾ ക്രിസ്ത്യൻസ് ക്രിസ്മസും മുസ്ലിംസ് പെരുന്നാളും ആഘോഷിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൽ പല തരത്തിലുള്ള കലകളുണ്ട് ഓട്ടം തുള്ളൽ കഥകളി മോഹിനിയാട്ടം അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലകളാണ് നാടൻ പാട്ട് അതുപോലെ വേല പൂരം അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ പാരമ്പര്യവും പാരമ്പര്യത്തിൽ വരുന്നതാണ് കലകളാണ് പിന്നെ പിന്നെ പറയ ണ് നമുക്കതിൻ്റെ നമുക്ക് നമ്മുടേതായ വസ്ത്ര വസ്ത്ര ധാരണയൊക്കെ ഉണ്ട് നമ്മൾ സാരി ഉടുക്കും അതുപോലെ തന്നെ പർദ്ദ മുസ്ലിംസ് ആണെങ്കിൽ പർദ്ദ ഇടും അപ്പോൾ എല്ലാത്തിനും അതിൻറ്റേതായ തനിമ നിർത്തി നിലനിർത്തിക്കൊണ്ട് വരുന്നുണ്ട് കേരളത്തിൽ